പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി നാല് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി എട്ട് പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പത്ത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി നാല് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത്